ഉത്സവങ്ങളില് നമ്മള് വളരെ ഗംഭീരമായ വിഭവങ്ങള് തന്നെ ആണ് വീട്ടില് ഉണ്ടാക്കാറുള്ളത് പറ എങ്കിലും ആണെങ്കില് രാവിലെ അതായത് ബ്രേക്ക് ഫാസ്റ്റിന് നമ്മൾ അപ്പവും ബീഫ് കറിയുമായിരിക്കും വീട്ടിലുള്ള എല്ലാവര്ക്കും തന്നെ അപ്പവും ബീഫ് കറിയും വളരെ പ്രിയപ്പെട്ട ഒരു വിഭവം ആയത് കൊണ്ട് കുട്ടികള്ക്ക് ആണെങ്കിലും അപ്പം എന്ന് പറഞ്ഞാല് ജീവനാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ഫംഗ്ഷന് അതായത് എന്ത് ഉത്സവങ്ങള് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ രാവിലെ അപ്പവും ബീഫ് കറിയും ആയിരിക്കും ഉച്ചയ്ക്ക് പിന്നെ നമ്മള് ചിക്കന് ബിരിയാണി അല്ലെങ്കില് മട്ടണ് ബിരിയാണി ആയിരിക്കും ചിക്കന് ബിരിയാണിക്കകത്ത് നല്ലതു പോലെ നെയ്യ് ചേര്ക്കുക എന്നുളളതാണ് എല്ലാവരുടെയും ആഗ്രഹം നെയ്യ് ചൊവ കുടൂതലായിട്ടുള്ള ബിരിയാണി കഴിക്കാനാണ് എല്ലാവര്ക്കും എറെ ഇഷ്ടം അതുകൊണ്ട് നെയ്യ് നല്ലതു പോലെ ഇട്ട് ഉണ്ടാക്കിയ ചിക്കന് ബിരിയാണി അഥവാ മട്ടണ് ബിരിയാണിയായിരുക്കും ഉച്ചയ്ക്കത്തേക്കിന് റെഡിയാക്കുക വൈകുന്നേരം ആകുമ്പോള് എന്തെങ്കിലും പായസമോ അല്ലെങ്കില് വേറേ എന്നതാണ് വേറെ എന്തെങ്കിലും അതായത് പലഹാരങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് കാരണം എല്ലാവരും ഉത്സവ ദിവസങ്ങളിൽ എല്ലാവര്ക്കും അവധിയായിരിക്കുമല്ലോ ആ സമയം എല്ലാവരും കൂടി കൂടി ഒന്നെങ്കില് പഴം പഴംപൊരിയോ അല്ലെങ്കില് പരിപ്പുവട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അല്ലെങ്കില് പായസം ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും വൈകുന്നേരങ്ങളില് ഉണ്ടാക്കും അങ്ങനെ പിന്നെ രാത്രി അതായത് രാത്രിലത്തെ ഭക്ഷണം മിക്കവാറും ചാപ്പാത്തിയായിരിക്കും കാരണം വൈകീട്ട് എല്ലാവരും ചാപ്പാത്തിയാണ് കഴിക്കാറ് പക്ഷേ ചാപ്പാത്തിയുടെ കൂടെ എന്തെങ്കിലും സ്പെഷ്യല് ആയി കറി വേണം ഉത്സവം ആയാല് ഉത്സവം അല്ലേ അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യല് കറി തന്നെ ചാപ്പാത്തിയുടെ കൂടെ വൈകീട്ട് വേണം ആ അതുകൊണ്ട് നമ്മൾ വൈകീട്ട് ചിക്കന് ഫ്രൈ ആയിരിക്കും ഉണ്ടാക്കാറ് ചിക്കന് ഫ്രൈ ഉണ്ടാക്കിട്ട് അതിന്റെ കൂടെ സബോള അരിഞ്ഞ് അങ്ങനെ വൈകീട്ട് ചാപ്പാത്തിയും ചിക്കന് ഫ്രൈയും